ഹലോ ആഹ് അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടോ തക്കാളിക്കൊക്കെ എന്താ വില ഓ വില കുറവാ ആ ഓ പെരുന്നാളിന് പെരുന്നാളിന്റെ ഓഫർ ആണോ ആ ചിക്കനൊക്കെ എന്താ വില ചിക്കനൊക്കെ വില കുറച്ചു തരികയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ വേണം നമുക്ക് ഫ്രഷ് മതി ഫ്രീസറിൽ വച്ചത് ഒന്നും വേണ്ട പിന്നെ ബിരിയാണി അരി വേണം പിന്നെ മസാലകളും എല്ലാം എല്ലാം എനിക്ക് നല്ല നല്ല സൈസ് അരി വേണം നമുക്ക് ആ പെരുന്നാളായിട്ട് വീട്ടിൽ ആളൊക്കെ വരുന്നതല്ലേ ഒരു കിലോ ആ നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാം വില കുറഞ്ഞതുണ്ടോന്നറിയാൻ വേണ്ടി വിളിച്ചതാ ഫ്രീ കൊടുക്കുന്നു ആആ അതൊക്കെ നല്ല സാധനങ്ങളായിരിക്കുമല്ലേ

പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എന്റെ വീട്ടിലുണ്ട് ചേട്ടാ ആ ആ ഉണ്ടെങ്കിൽ പറഞ്ഞുവിടാം ഞാൻ

ഏതിന്റെ ആ ആ ആ ആ ആയിക്കോട്ടെ സമ്മാനക്കൂപ്പണെല്ലാം വെറുതെയാണ് ആ അതെന്തായാലും എനിക്കുതന്നെയായിരിക്കും എനിക്ക് ആയിരത്തിലൊന്നും പോരാ ഇപ്പം കൂപ്പൺ കൂടുമോ ആ എന്നാൽ ആയിക്കോട്ടെ ഞാൻ രണ്ട് മൂന്നാളെ കൂട്ടിയിട്ട് വരാം ആ ആയിക്കോട്ടെ കാറ് കിട്ടുകയാണെങ്കിലോ ആയിക്കോട്ടെ ചേട്ടാ